കോവിഡ് നയന്റിന് പകര്ച്ചവ്യാധിന്റെ സമയത്ത് ഞാൻ ഗള്ഫിലാണ് മുക്കത്ത് അങ്ങനെ കോവിഡ് പകര്ച്ചവ്യാധി വന്നപ്പോൾ എല്ലാം ഷട്ട് ഡൗണ് ചെയ്ത് അങ്ങനെ ജോലി ചെയ്യാന് കഴിയാതെ ബുദ്ധിമുട്ടി കുറച്ച് അഞ്ചാറ് മാസങ്ങളോളം റൂമിലിരിക്കേണ്ടി വന്നു മക്കത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാന് ട്രാവൽ ചെയ്യാന് പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഏകദേശം കോവിഡ് നയന്റിന് പ്രശ്നങ്ങൾ കുറെ ഒക്കെ ഓപ്പണായതിനു ഷേഷമാണ് അവിടുന്നു മറ്റുള്ള സ്ഥലങ്ങൾക്ക് പോകാന് കഴിഞ്ഞത് അത്രയും കോവിഡ് നയന്റിന് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചൊരു വ്യക്തിയെന്ന നിലക്ക് എന്റെ അനുഭവങ്ങൾ ഇങ്ങനെയായിരുന്നു യാത്രക്കും അവിടുന്നു പിന്നെ സൗദിയിലുള്ള അബാ എന്ന സ്ഥലത്തൊക്കെ വരാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് യാത്രയിൽ തന്നെ മാസ്ക് ഗ്ലവ്സ് അത്രയും പ്രശ്നങ്ങളും ജോലി സ്ഥലത്തായാലും മറ്റ് അവരെ കോവിഡിന്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടേ ജോലി ചെയ്യാം സാധിക്കുമായിരുന്നുള്ളൂ